എൻ്റെ വീട്ടിൽ തുണി തയ്ക്കാനുള്ള മിഷ്യനുണ്ട് അതിന് ബോഗൻ ഗീസ് കത്രിക അങ്ങനെയൊക്കെ ആദ്യ കാലത്തൊക്കെ സാധാ മെഷിന് കാലുകൊണ്ട് ചവിട്ടി ഈ മെഷിന് തയ്ച്ചിരുന്നു ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ മെഷിൻ വന്നതുകൊണ്ടിച്ചിരികൂടി സൗകര്യമായി പിന്നെ തയ്ക്ക് ഞാൻ അത്യാവശ്യം തയ്ക്കും നൈറ്റിയ് ബ്ലൗസ് സ്കേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് തയ്ക്കാൻ അറിയാം സെയിലൊന്നും ഇല്ല പിന്നെ കമ്പിളി നൂൽ ആണെങ്കിലും കമ്പിളി നൂലുകൊണ്ട് സ്വെറ്ററ് തയ്ക്കാൻ സ്വെറ്ററല്ല ഇത് മഫ്ളറ് തയ്ക്കാൻ എനിക്ക് അറിയാം ഞാനിത് തൈച്ചിട്ടും ഉണ്ട് ഇപ്പം അങ്ങനെ തയ്യിലൊന്നും ഇല്ല എന്നാൽ ആ നൂലൊക്കെ കുറച്ചുണ്ട് എനിക്ക് ഞാൻ ഇടയ്ക്ക് അത് തൈക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടുതാനും എന്നതാ സാധനമാണ് കൊണ്ട് ഈ എല്ലാവർക്കും ഒന്നും മെഷൻ മേടിക്കാനുള്ള പണമൊന്നുമില്ല ഇപ്പം സാധാരണക്കാരായ അവരുടെ കുറേ തൊഴിലാളികളായ സ്രീകളും ഒക്കെയുണ്ട് അവർക്കൊക്കെ ഈ സർക്കാരിന്റെ അത് മിഷൻ സൗജന്യമായിട്ട് അല്ല ചെറിയ വിലയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പേർ ആ മെഷൻ ഉപയോഗിച്ച് തയ്ക്ക്ക അവർക്കൊരു തൊഴിലാവുകയും ചെയ്യും പിന്നെ തുണികളൊക്കെ ആണെങ്കിലും എടുത്തു തയ്ച്ച് അത് ഇച്ചിരി വിലകുറച്ചു കൊടുത്ത് ഒക്കെ ആയാലും ഇവിടെത്തന്നെ തയ്ച്ച് ഇവിടെത്തന്നെ ഇവിടെയുള്ള മനുഷ്യർക്ക് തന്നെ കൊടുക്കുകയും ഇവിടെയുള്ള മനുഷ്യർക്ക് കുറേ തൊഴിൽ കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്ക് മെഷിനാണെങ്കിൽ ഒത്തിരിയുംകൂടി സൗകര്യം പെട്ടെന്ന് തയ്ച്ചെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഈ നൈറ്റി തയ്ച്ചു കൊടുക്കുകയും അതുപോലെ ഈ നൈറ്റിത്തുണികൽ മേടിച്ചു വച്ചേച്ച് അത് ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പം അത് തയ്ച്ചു കൊടുക്കാം പിന്നെ ലൈനിങ് തുണി പിന്നെ സാരിഫാള് ഒക്കെ ആയിട്ട് മേടിച്ചു വെച്ചേച്ച് ആരെങ്കിലുമൊക്കെ ഇന്നതു ചെയ്തു കൊടുക്കാമോയെന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പം ഞങ്ങളത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊരു ചെറിയ വരുമാനവും കിട്ടും സ്ത്രീകൾക്ക് പുരയ്ക്കകത്ത് പുരയ്ക്കകത്ത് ജോലിയൊക്കെ കഴിഞ്ഞു വെച്ചാൽ ഈ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് കുറച്ച് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും പിള്ളാരുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും വീട്ടുസാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനും ഓക്കെയായിട്ട് പിന്നെ സർക്കാരായാലും ഇത് തൊഴിൽ ഈ ആരെങ്കിലും ഏർപ്പെടുത്തി ഈ കുറേ ജനങ്ങൾക്ക് ഇത് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ജനങ്ങൾ ഇത് തൊഴിൽ പഠിച്ച് ഈ തൊഴിൽ ചെയ്തു അവർക്കൊരു ഉപജീവനമാർഗ്ഗം കൂടി ആവും അന്ന് ഉണ്ട് അങ്ങനെയൊരു ചെറിയൊരു സംവിധാനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലാതെ ഭയങ്കര വില കൊടുത്തെല്ലാ മനുഷ്യർക്കുമൊന്ന് മേടിക്കാൻ പറ്റുകില്ലല്ലോ